ഇന്ത്യൻ ഫാഷൻ രംഗത്ത് ഇപ്പോൾ ഒരു നല്ല മുന്നേറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പാശ്ചാത്യ രീതി മാത്രം നമ്മുടെ ഫാഷൻ എന്ന് പറയുന്നത് ശരിക്കും സത്യം പറയാണെങ്കിൽ നമ്മുടെ ഓരോ സംസ്ഥാനത്തിന് അതിൻറ്റേതായ വസ്ത്ര ധാരണ രീതി വേണമെങ്കിൽ ഉണ്ടെന്ന് പറയാൻ പറ്റും കാരണം ഇപ്പോൾ നമ്മൾ ഓരോ ആൾക്കാർ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തമിഴ് നാട് കേരളം മറ്റ് ആന്ധ്ര അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ നോക്കുകയാണ് പറയുമ്പോൾ മെയിനായിട്ട് അവർ ഷർട്ടും മുണ്ടും തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ വേഷമാണ് കൂടുതലായിട്ട് ധരിക്കുക പക്ഷേ അത് അവരുടേതായ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ അവരുടുക്കുന്നത് നമ്മൾ ഉട് കേരളത്തിലെ ആൾക്കാർ ഉടുക്കുന്ന പോലെ അല്ല ആന്ധ്രയിലും തമിഴ് നാട്ടിലും ആൾക്കാർ കേരളത്തിൽ മുറിവ് അതായത് ഗ്യാപ് മട്ടി ഗ്യാപ്പുള്ള മുണ്ടാണ് ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ഉള്ള അളവാണ് അവരത് അതിനുള്ളിലേക്ക് ഇറങ്ങി ആണ് മുണ്ടുടുക്കണോ വേണവര് ഉടുക്കുക ആന്ധ്രാക്കാരെന്നു പറയുമ്പോൾ അവർ മുണ്ട് മടക്കി കുത്തിയിട്ടുള്ള സ്റ്റൈലാണ് അവരുടെ പ്രാദേശിക ഒരു ഇത് അങ്ങനെ ഓരോ സംസ്ഥാനത്തിനും ഓരോ രീതിയാണ് ഇപ്പോൾ നമ്മൾ നോർത്തിലേക്ക് പോകുകയാണെങ്കിൽ അവർ മെയിനായിട്ട് മേ പേന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് എന്താണ് പറയുക പ്രമോട്ട് ചെയ്യുന്നത് അതുപോലിപ്പോൾ നമ്മൾ സാരിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പ്രാദേശികമായിട്ട് എല്ലാവിടെയും സാരി തന്നെയാണ് ഉപയോഗിക്കുന്നത് സ്ത്രീകൾ പക്ഷേ അതിന് അവരുടുക്കുന്ന രീതിക്ക് ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട് ഇപ്പോൾ ഇതാ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതു മാതിരി കേരളത്തിൽ അതുപോലെ തമിഴ്നാട്ടിൽ അതിൻറ്റേതായ അവരുടുക്കുന്ന രീതിക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെന്ന് പറയുമ്പോൾ പാശ്ചാത്യ രീതിയെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട് ഫേഷൻ രംഗത്തേയ്ക്ക് പിൻ ഇപ്പോൾ ജീൻസ്സ് ടോപ്പ് കുർത്തി ലെഗ്ഗീൻസ് പിന്നെ ബൊ ആണുങ്ങളെ നോക്കുകയാണ് പറയുമ്പോൾ പൈജാമ കുർത്ത അങ്ങനത്തെ പല പല രീതിയിലുള്ള ഡ്രെസ്സും കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു പുറത്ത് ആൾക്കാരുപയോഗിക്കുന്നതുമായ രീതി കണ്ട് അതിൽ ആകൃഷ്ടരായി അതും നമ്മളുപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്